ഒരു രണ്ട് മാസം മുന്നേ ഞാന് സിത്താര കൃഷ്ണകുമാറിൻ്റെ ലൈവ് പെർഫോമൻസ് കേൾക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് പോയത് വളരെ നല്ല അടിപൊളിയാരുന്നു പ്രോഗ്രാം നല്ല രസമുണ്ടായിരുന്നു പാടുന്നതൊക്കെ കേൾക്കാൻ ലൈവായിട്ട് ഞാന് ഇത്രയും പേരുടെ ഇടയിൽ നല്ല ബാൻഡും അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര സൗണ്ട് സൗണ്ട് സിസ്റ്റം സ്പീക്കർസ് അങ്ങനെ ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു പിന്നെ എന്താ പറയുക ഞാനൊരിക്കലും അങ്ങനെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ പോയിട്ട് ഞങ്ങള് കുറെ ഡാൻസൊക്കെ കളിച്ചു കുറെ തുള്ളി നല്ല രസമുണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്താ പറയുക അറിജിത് സിംഗ് ഹിന്ദി സിംഗറായിട്ടുള്ള അറിജിത് സിംഗിൻ്റെയും ശ്രേയ ഘോഷാലിൻ്റെയും ലൈവിനൊക്കെ ലൈവ് പെർഫോമൻസിനൊക്കെ പോയാൽ കൊള്ളാമെന്നുണ്ട് ഇതുവരെ എനിക്ക് പോവാൻ ചാൻസ് കിട്ടിയിട്ടില്ല പക്ഷെ പല പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടവരുടെയൊക്കെ പെർഫോമൻസിൻ്റെ നല്ല രസായിരുന്നു വിഡിയോസിലൊക്കെ അപ്പം നേരിട്ടെന്തായിരിക്കും എക്സ്പീരിയൻസ് എനിക്ക് അറിയില്ല എനിക്ക് അനുഭവിക്കണമെന്ന് നല്ല ആഗ്രഹുണ്ട് എപ്പം പറ്റുന്നെന്നും എനിക്ക് അറിഞ്ഞുകൂട പക്ഷെ എനിക്ക് അത് അതിപ്പോൾ അതിന് പോകാ ൻ ഒര് ചാൻസ് കിട്ടിയാൽ ഞാൻ എന്തായാലും പോകും എനിക്ക് മെയിൻലി ആഗ്രഹം ഇവരുടെയാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല എനിക്ക് പാട്ട് കേട്ട് ഏത് പെർഫോമൻസസ് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആരുടെ ആയാലും ഞാൻ പോവും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലാഗ്രഹം ഇവരുടെ രണ്ടിനും പോകാനാണ് അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ് പാട്ട് ഇങ്ങനത്ത ലൈവായിട്ടുള്ള പെർഫോമൻസസക്കെ പോയിട്ട് ലൈവ് ലൈവില് കേൾക്കാൻ മറ്റേ പാട്ട് സിനിമയില് കേൾക്കുന്ന പോലെ അല്ല ലൈവ് കേൾക്കുന്നത് ഭയങ്കര വ്യത്യാസമാണ് നല്ല രസമാണ്